ഹലോ

ഹലോ ആ ചേച്ചി ഞാനേ ചേച്ചി അണ്ണാ കാറ്ററിംഗല്ലേ ചെയ്യുന്ന ചേച്ചിയല്ലേ ആ അപ്പം ഞാൻ സ്മിതയാണ് സ്മിതയാണ് അപ്പം എനിക്ക് പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം എൻ്റെ ആങ്ങളയുടെ കല്യാണം കല്യാണം ആണ് അടുത്ത പത്താം തീയതി അപ്പം ചേച്ചി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണല്ലോ അപ്പം ചേച്ചി ആകുമ്പം ന്യായമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുമോ എന്ന് വിചാരിച്ചാണ് ചേച്ചിൻറ്റെ ഓർഡറ് കൊടുക്കുന്ന ഒത്തിരി പേര് ഞങ്ങളെ വിളിച്ചു അപ്പം ചേച്ചി ആകുമ്പഴത്തേന് പിന്നെ ന്യായമായിട്ടൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുമല്ലോ എന്ന് ഓർത്താണ് പിന്നെ ചേച്ചിയുടെ ഫുഡ് നല്ല ടെസ്റ്റുമാണ് അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും പറഞ്ഞ് ചേച്ചിക്ക് പിന്ന ഓർഡറ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചേച്ചിക്ക് ഓർഡർ തരുവാണേൽ ഓഡ് തരാൻ വേണ്ടി ആലോചിക്കുന്നു തന്നില്ലല്ലോ തരാൻ വേണ്ടി ആലോചിക്കുവാണേൽ അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ കാണുള്ളൂ വീട്ടുകാരെ കാണുള്ളൂ അപ്പം ഉച്ചയ്ക്കത്തേന് ഞങ്ങൾക്കൊരു നൂറ്റമ്പത് പേർക്ക് ഊണ് വേണം ആ ഊണാണ് ഉച്ചയ്ക്ക് ഊണ് മതി അപ്പം അത് പിന്നെ വീട്ടുകാരൊക്കെ ഉള്ളൂ കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ അന്നേരം ഉച്ചയ്ക്കത്തെ ഊണിന് എന്നാ ഒക്കെ ചേച്ചി കറി ഉണ്ടാക്കി തരുന്നത് ആ ആ പുളിശ്ശേരി പുളിശ്ശേരി വേണം പിന്നെ എന്നാ ഒരു സാമ്പാറ് വേണം ആ പിന്നെ ഒരു അച്ചാറ് ഒരു അച്ചാറ് മതി കേട്ടോ ആ ഒരു അച്ചാറ് മതി പിന്നെ ഒരു തോരൻ പിന്നെ ഒരു പച്ചടി ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം പിന്നെ ഒരു പച്ചടി ഒരു തോരൻ പുളിശ്ശേരി ജ്യൂസ് ഐറ്റംസ് നിങ്ങൾ എന്നതാ കൊടുക്കുന്നത് പൈനാപ്പിൾ ജ്യൂസാണോ ആണോ ആ ആ അപ്പം നമുക്ക് പിന്നെ ഞങ്ങൾക്ക് ഇത് മതി എന്നാൽ നാരങ്ങ മതി നാരങ്ങ ജ്യൂസ് മതി ആ നാരങ്ങ മതി അപ്പോൾ ആദ്യമേ നാരങ്ങ ജ്യൂസും പിന്നെ ഒരു നൂറ്റമ്പത് പേർക്കള്ള ചോറും കറിയും അപ്പോൾ നൂറ്റമ്പത് പേർക്കെന്ന് പറയുമ്പം ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് പേർക്ക് കൂടെ കൊടുക്കാൻ തികയുമായിരിക്കും അല്ലേ പത്ത് ഇരുന്നൂറ് പേർക്ക് കൊടുക്കാൻ കാണുമായിരിക്കും ഉം ഒരു പ്ലേറ്റിന് പത്ത് ഒരു പ്ലേറ്റിന് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ചേച്ചി നമ്മൾ ഒരു നാട്ടുകാരല്ലേ

ആയ്യോ ചേച്ചീ ചേച്ചിയാവുമ്പോൾ പൈസ ചേച്ചിയാവുമ്പോളേ ചേച്ചിയാവുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചേച്ചിയെ തന്നെ ഏൽപ്പിക്കുന്നത് ആ ആണല്ലേ ആ എന്നാലും ചേച്ചി അഡ്ജസ്റ്റ് ചെയ്തൊരു ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ ഉണ്ടാക്കി തരാൻ പറ്റത്തില്ലേ ഇല്ലേ ഇല്ലല്ലേ ആ ആ എന്നാലും ഒരു ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ചേച്ചി അല്ലെങ്കിൽ മറ്റേ വേറെ കാറ്ററിങ്ങ്കാരൊക്കെ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ആ എന്നാലും എന്താ വൈകിട്ടത്തെ ഫുഡും ഞങ്ങൾ ഓഡർ തരാം ഉച്ചക്കത്ത ഫുഡ് ആ ആ ആണല്ലേ അത് അറിയാം അത് അറിയാവുന്നതുകൊണ്ടല്ലേ ചേച്ചിക്കതിന് ഞങ്ങൾ ഓർഡറ് തരാൻ വിളിക്കുന്നത് ഏ ആ അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നിട്ട് ഞങ്ങൾക്ക് വൈകിട്ട് ഫുഡ് വേണം വൈകിട്ട് ഞങ്ങൾക്കൊരു ആയിരം പേർക്ക് ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയായിട്ട് വേണ്ട പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ കറി ആ വേറെ വേറെ ഫ്രൈഡ് റൈസ് വേറെ ചിക്കൻ കറി വേറെ പിന്നെ അതിൻ്റെ കൂടെ സാലഡ് സാലഡ് അച്ചാറ് പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് ആയാലും മതി ആ അതിൽ രണ്ടിൽ ഏതെങ്കിലും ആയാലും മതി അപ്പം ആ വൈകീട്ട് ജ്യൂസ് വേണ്ടേ വൈകുന്നേരം അല്ലേ വൈകുന്നേരം വെള്ളം വെള്ളം അത് ഞങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കി കൊണ്ട് തിളപ്പിച്ചിട്ടോളം വെള്ളത്തിന്റെ കാര്യം ചേച്ചി വിഷമിക്കേണ്ട റൈസും ആ ആ കുപ്പി ആ കുപ്പിവെള്ളം ആ കുപ്പിവെള്ളം അറേഞ്ച് ചെയ്താൽ മതിയേ ആ പിന്നെ റൈസും പിന്നെ ഐസ്ക്രീമും സാലഡും അച്ചാറും അപ്പം ചേച്ചിക്ക് ഞാൻ ഓർഡറ് അപ്പം റെഡിയാക്കി തരുവാണേൽ അപ്പം ചേച്ചി അത് ചെയ്യണം ആ ആ ശരി ഓക്കെ ഓക്കെ